നമ്മൾ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാമ് വാട്സപ്പ് ഒക്കെയാണ് വാട്സപ്പ് എന്ന് വച്ചുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഏത് നേരം ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും നമുക്ക് എപ്പോഴും ആരോടെങ്കിലും എന്ത് വേണമെങ്കിലും മെസേജ് അയക്കാം പെട്ടെന്ന് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേഗം പറയാനുള്ളത് കാര്യങ്ങൾ വേഗം പറയുക എന്തെങ്കിലും ഇപ്പം വല്ല ഡോക്യുമെൻ്റ് സും എന്തെങ്കിലും നമ്മൾ എടുക്കാൻ മറന്നാൽ തന്നെ നമുക്ക് അത് വേഗം അത് അയച്ച് കൊടുത്ത് അവരുടെ കാര്യം നിറവേറ്റാം നമുക്ക് ഇരുന്ന് കൊണ്ട് അതെപോലെ നമുക്ക് കമ്യൂണിക്കേഷൻ ഭയങ്കര സുഖമാണ് നമ്മുടെ ഫ്രെണ്ട്സ് നമ്മൾ കാണാത്ത ഫ്രെണ്ട്സ് നമുക്ക് ഇപ്പോൾ വീട് അടുത്തില്ലാത്ത ഫ്രണ്ട്സിനൊക്കെ നമുക്ക് മെസേജ് അയക്കാം ഇപ്പം ഇൻസ്റ്റയിൽ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പം നമ്മൽ ഹായ് ഹലോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു റീല് അയച്ച് കൊടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ടുള്ള ബന്ധം വീണ്ടും നമുക്ക് കൊണ്ട് പോവാൻ പറ്റും ഇരുന്ന് കൊണ്ട് അതെപോലെ തന്നെ ദോഷം എന്ന് വച്ചുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറേ ഉണ്ട് ഇരുന്നിട്ട് എന്ത് സാധനത്തിൻ്റെയും ഗുണം ഉള്ളത് പോലെ ദോഷവും ഉണ്ടാവും ദോഷം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എന്ത് ചെയ്താലും അത് നമുക്ക് ഇൻസ്റ്റയിലും വാട്സപ്പും വഴി പ്രചരിപ്പിക്കും ഇരുന്ന് കൊണ്ട് ഇപ്പം നല്ലത് ആവണം എന്നില്ല ചീത്ത കാര്യങ്ങൾ കുറേ ആവാം ഇപ്പം ആരെങ്കിലും എന്ത് എവിടെ എന്ത് ചെയ്താലും അത് നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ടും വൈറൽ ആവുകയും നല്ല രീതിയിലും ചീത്ത രീതിയിലും ആതായി കൊണ്ടിരിക്കും ഇരുന്ന് കൊണ്ട് സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഭയങ്കരമായിട്ടും കുഞ്ഞിപ്പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ചെറിയ പിള്ളേർക്ക് തന്നെ പാരൻസ് തന്നെ അവർക്ക് കൊടുത്ത് ചീത്തയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം പുറം ലോകമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഓൺലൈനിൽ തന്നെ ഇരുന്ന് ഫോണിൽ ഇരുന്ന് അതിലെ കാര്യങ്ങൾ മാത്രം സ്വന്തം വീട്ടിലെ അപ്പുറത്ത് എന്ത് നടക്കുന്നു അതൊന്നും അറിയില്ല ഇവർ ഇരുന്ന് കൊണ്ട് അതെ പോല തന്നെ ഇപ്പം സ്മാർട്ട് ഫോൺ വന്നത് കൊണ്ട് നമുക്ക് ഇപ്പം എന്ത് കാര്യങ്ങളിലും നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഈ ചെറിയ ഈ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നതെ ഉള്ളു ഇരുന്ന് കൊണ്ട് എന്ത് നമുക്ക് പോയി ട്രാവലിങ് ഒന്ന് ചെയ്ത് വേറെ ടൗണിൽ പോയി അങ്ങനെയൊന്നും ചെയ്യേണ്ട നമുക്ക് എല്ലാം നമ്മുടെ കൈയ്യിൽ തന്നെ കിട്ടാനിരുന്നു എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പം നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതെ ഉള്ളു ഇതൊക്കെ ഇരുന്നിട്ട്